ഇപ്പോൾ എൻ്റെ സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ വളരെ അധികം ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കാറുണ്ട് ഇപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ അടുത്തുള്ള പട്ടണത്തിലോട്ട് പോകാനായിട്ട് കാരണമെന്നുപറഞ്ഞു കഴിഞ്ഞാൽ എന്നും എപ്പോഴും ഏത് സമയത്തും ബസ് ഇല്ല അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ് അത് നമുക്ക് വളരെ ഒരു വിശദമായിട്ട് ചിന്തിക്കാവുന്ന കാര്യമാണ് അല്ല വിശദമായിട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് ബസ്സില്ല എനിക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ട് ഞങ്ങളുടെ പട്ടണത്തിലോട്ട് പോകാനായിട്ടാണെങ്കിലും അരമണിക്കൂർ കൂടിയാണ് ബസ് അരമണിക്കൂർ കൂടി ബസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഏരിയയിലുള്ള മിക്കവരും പട്ടണത്തിലോട്ട് പോകേണ്ടവർ തന്നെയാണ് അവർ പല സമയത്താണ് രാവിലെയും വൈകീട്ടും എല്ലാം അവർക്കെല്ലാവർക്കും ജോലി ഉള്ളവരുമാണ് രാവിലെയും വൈകീട്ടും എല്ലാം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി തിരിച്ചു വീട്ടിൽ കയറുന്നത് ഈ അരമണിക്കൂർ അരമണിക്കൂറാണ് അതായതു ഏറ്റവും വലിയ ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു സമയമാണ് ആ സമയം അതായത് രാവിലെ എട്ട് മണിക്ക് ഒരു ബസ്സുണ്ട് പിന്നെ ഒരു എട്ടര എട്ടേ മുക്കാൽ കഴിഞ്ഞിട്ടേ ബസ്സുള്ളൂ അപ്പോൾ സ്കൂളിലെ ഏത് വിദ്യാർത്ഥികളാണെങ്കിലും രാവിലെ എട്ടര എട്ടര എട്ടേ മുക്കാലാകുമ്പോൾ ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും അവർ എട്ടര എട്ടേ മുക്കാലാകുമ്പോൾ ഇവിടുന്ന് വണ്ടി കയറത്തേ ഉള്ളൂ അത് ഏറ്റവും വലിയ ടാസ്കാണ് അതിപ്പോൾ അവർക്ക് ഏറ്റവും നേരത്തെ രാവിലെ പോകാനും പറ്റത്തില്ല അവർക്ക് ചിലപ്പോൾ ട്യൂഷനും കാര്യങ്ങളുമൊക്കെ കാണും കാരണം ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ ഇടവിട്ടാണ് എപ്പോഴും വണ്ടി ഉള്ളത് പിന്നെ വണ്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ യാത്ര സൗകര്യം വളരെ ദുർഘടമായൊരു സൗകര്യമാണ് കാര്യമെന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഓടുന്ന ബസ്സെല്ലാം കുഞ്ഞി ബസ്സാണ് അപ്പോൾ അതിനു തിക്കി നിറക്കാൻ പറ്റുന്ന ആൾക്കാരെയും ചെറു വളരെ ചെറുതായിരിക്കും ബാക്കിയുള്ളവർ ബസ് സ്റ്റോപ്പിൽ പിന്നെയും നിൽക്കണം അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടവർ ചിലപ്പോൾ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറുമൊക്കെ കാത്തു നിന്നിട്ട് പട്ടണത്തിലോട്ട് പോകുന്നവരുണ്ട് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികളാണെങ്കിലും ശരി ഒരിക്കലും തിങ്ങി നിറഞ്ഞു ഒരിക്കലും സ്കൂളിലോട്ട് പോകാനായിട്ടും എല്ലാം പറ്റണ്ട ഒരു സാഹചര്യമാണ് അവർക്കു ഇപ്പോൾ ഞാൻ നിലവിൽ കണ്ടു വരുന്നത് അതിൽ നിന്നൊക്കെ വളരെ ഒരു മാറ്റവും അതിൽ നിന്നൊക്കെ ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് അവർക്ക് വേണമെന്ന് ഞങ്ങളും ഞങ്ങൾ ഞങ്ങൾക്കും അതിൽ നിന്ന് വേറിട്ടൊരു എക്സ്പീരിയൻസ് വേണം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിങ്ങി നിറഞ്ഞു ഒന്നും ഒരിക്കലും ഏങ്ങും പോകാനും പറ്റത്തില്ല അതൊക്കെ വളരെ എന്താണ് പറയേണ്ടത് അത് വളരെ നമ്മൾ ചിന്തിച്ച് അതിനെ പറ്റി തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങളുടെ മേലധികാരികൾക്കും അതൊക്കെ ഞങ്ങൾ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം യാത്ര ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ പട്ടണത്തിലോട്ട് പോകാൻ തന്നെ കുറേ റോഡും മാർഗങ്ങൾ ആണെങ്കിലും കുറേ ബ്ലോക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കുറേ കുണ്ടും കുഴികളും എല്ലാം കാരണം വളരെ ദുർഘടമായിട്ടുള്ളൊരു പോക്കാണ് അതിപ്പം അരമണിക്കൂർ കൊണ്ട് പട്ടണത്തിൽ എത്തണമെങ്കിൽ അത് ചിലപ്പം മുക്കാമണിക്കൂറും ചിലപ്പം ഒരുമണിക്കൂറും കഴിഞ്ഞെന്നിരിക്കും അപ്പോൾ ഒരു സ്വ സ്വഭാവികമായിട്ടും സ്കൂളിൽ പോകുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ് അവർ ഇത് ഇതിൽ നിന്ന് മുൻപോട്ട് പോകുന്നത് ഇതിനെ തരണം ചെയ്തെല്ലാം വേണം അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരുമണിക്കൂറിൻ്റെ ബ്ലോക്ക് അല്ലെ അരമണിക്കൂറിൻ്റെ ബ്ലോക്ക് ഈ അരമണിക്കൂറിന് വണ്ടി വണ്ടി അഥവാ വന്ന ബസ് സ്റ്റോപ്പിൽ വന്നവർക്കു വണ്ടി കിട്ടാതെ വരിക ഇതൊക്കെ ഏറ്റവും തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയും പിന്നെ അവർക്ക് എപ്പോഴും നമ്മൾ പഠിത്തത്തിന് മുൻഗണന എപ്പോഴും കൊടുക്കേണ്ടതാണ് പിന്നെ കുട്ടികൾക്കു പോകേണ്ട സൗകര്യം നമ്മൾ എപ്പോഴും ഒത്തൊരുക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ യുവതലമുറക്കാരും അതിനു വേണ്ടി തന്നെയാണ് ശ്രമിക്കുന്നത് ഞങ്ങൾക്കു വന്ന ബുദ്ധിമുട്ട് ഒരിക്കലും ഈ വളർന്നു വരുന്ന ഈ പുതിയ തലമുറക്കൊരിക്കലും വരല്ലെന്ന് വരര വരരുത് എന്നാണ് ഞാനും ചിന്തിക്കുന്നത് അതുകൊണ്ട് എന്തായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ മേലധികാരികൾക്ക് എല്ലാം പരാതി കൊടുക്കുകയും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിൻ നിന്നു ചിലപ്പോൾ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ വളർന്നു വരുന്ന പുതിയ തലമുറയ്ക്ക് ഞങ്ങളുടെ ഗ്രാ ഞങ്ങളുടെ ഈ ഞങ്ങളുടെ ഈ സ്ഥലത്തെ കുട്ടികൾക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും മോചനം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്കു അത് വലിയൊരു സന്തോഷം തന്നെ ആയിരിക്കും അതുകൊണ്ട് ഞാൻ മാക്സിമം എന്തായിരുന്നു ഞങ്ങളുടെ കുട്ടികളെ എല്ലാം ചേർത്ത് നിർത്തി അവരുടെ അവരുടെ എല്ലാവരുടെയും പരാതിയും എല്ലാം മേടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ മേലധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു